ആ ഹലോ എടീ ഞാൻ അനീഷ ആയിരുന്നു മനസ്സിലായോ ആ ഞാൻ ഈയിടക്ക് പുതിയ സിം എടുത്തിരുന്നു അപ്പോൾ നിൻ്റേൽ വേറെ നമ്പർ അല്ലേ ഉള്ളത് ആ അതിനി കളഞ്ഞേരെ അത് ഞാൻ കളഞ്ഞായിരുന്നു ആ സിം അപ്പൊ ഇപ്പോൾ പുതിയ ആ ഹലോ ഹാ ഇടക്ക് റേഞ്ച് കട്ട് ആയിപ്പോയതാണ് ഞാൻ എനിക്ക് പിന്നെ തിങ്കളാഴ്ച തൊട്ട് പാൽ വേണ്ടായിരുന്നു അപ്പോൾ അതേ പറ്റി പറയാൻ വേണ്ടി വിളിച്ചതാണ് ആ ഈ വെക്കേഷൻ ഒക്കെ വരുവല്ലേ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവാമെന്ന് വിചാരിച്ചു ഒത്തിരിയായി നാട്ടിലോട്ട് ഒക്കെ പോയിട്ട് അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയാണ് അപ്പോൾ അങ്ങനെ പോകാം എന്നു കരുതി ആ ഫാമിലിയും പോകുന്നുണ്ട് അപ്പം ചേട്ടന് ഈ പറയും പോലെ ഒരു മാസം ലീവ് കിട്ടി അപ്പം പോയി എല്ലാ ഇടമൊക്കെ ഒന്നു പോയി നിന്നിട്ടൊക്കെ വരാമെന്ന് ഓർത്തു

അപ്പം ഈ പാലിൻ്റെ പൈസ ഞാൻ കൊച്ചിൻ്റേൽ കൊടുത്തു വിടാം ഇന്നു വരെ ഉള്ളത് ആ ഞാൻ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട് അത് കറക്റ്റ് ആണോ എന്നു ഒന്ന് നോക്കിയേരെ ഇനി പിന്നെ ഒരു മിസ്റ്റേക്ക് വരേണ്ടല്ലോ ആ ആ ആ അതു ശരിയാണ് വീടുകളിൽ നിന്നു മേടിക്കുന്നത് നമുക്ക് ചെറിയ കുറവുണ്ടല്ലോ

ആ ആണല്ലേ അപ്പോൾ ഞാൻ ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ വിളിക്കാം അപ്പം കൂട്ടിയ പൈസ പറഞ്ഞാൽ മതി അപ്പം അതിനനുസരിച്ചു തരാവേ ഇല്ല ഇല്ല അവർ അവർ അങ്ങനെ എങ്ങും പോകുന്നില്ലല്ലോ അവർക്ക് കുഴപ്പം ഇല്ല അവർ അങ്ങ് വാങ്ങിച്ചോളും നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ അത് ഞാൻ എന്നാൽ ആ ചേച്ചിയോട് ചോദിച്ചിട്ട് ഞാൻ പറയാം അത് എങ്ങനെ എന്നു ചോദിച്ചിട്ട് ഞാൻ പറയാം ആ ഈ പ്രാവശ്യത്തെ ഒരുമിച്ചു കൊടുത്തുവിടാം ഇനി ആ ഒരുമാസത്തേത് വല്ല ഗൂഗിൾ പേയോ അല്ലെങ്കിൽ പിള്ളേരുടെ കൈയിലോ ഒന്ന് കൊടുത്തുവിടാൻ പറയാം ആ അതു കുഴപ്പം ഇല്ല ആ എങ്കിൽ ശരി എങ്കിൽ ഞാൻ വരുമ്പോൾ എന്നാൽ വിളിക്കാം ആ ഓക്കെ ശരി